ആളുകൾ പട്ടണങ്ങളിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നതുകൊണ്ട് യുവ തലമുറ തലമുറക്ക് അവർക്കനുയോജ്യമായ ജീവിത പങ്കാളികളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പട്ടണം എന്ന് പറയുന്നത് ഒരു കോടാനുകോടി അല്ലെങ്കിൽ ലക്ഷോതിപതി ലക്ഷ ജനങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അതിനുള്ളിൽ ഇഷ്ടംപോലെ ആളുകൾ നിരവധി ആളുകളെ നമുക്ക് ലഭിക്കുന്നതാണ് ഇതിലൂടെ ഒരു മനുഷ്യന് അവൻ്റെ ജീവിത പങ്കാളികളെ കിട്ടാൻ യാതൊരു വിധ ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ ഈ കിട്ടുന്ന ജീവിത പങ്കാളികൾ എത്രമാത്രം സത്യസന്ധമാണോ വിശ്വസനീയമാണോ വിശ്വാസ യോഗ്യമാണോ എന്നുള്ളതാണൊരു ചോദ്യചിഹ്നം കാരണം പട്ടണങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരേക്കാൾ സത്യസന്ധതയും വിശ്വാസ്യതയും താരതമ്യേനെ കുറവാണ് എന്നാൽ എല്ലാവരും അങ്ങനെയുള്ളവരല്ല അതുകൊണ്ടുതന്നെ നമുക്ക് ഇവർ വിശ്വാസയോഗ്യമാണോ അല്ലയോ ഇവർ ചതിക്കുമോ ഇല്ലയോ എന്നൊന്നും തിരിച്ചറിയാൻ നമ്മൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ടുതന്നെ പട്ടണങ്ങളിൽ ജീവിക്കുന്നതിലൂടെ ജീവിക്കുന്ന യുവതലമുറക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കിട്ടാൻ സാധ്യതയുണ്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ അവർ സത്യസന്ധതയുള്ളവരാണോ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുകയില്ല